ഞാനിപ്പോൾ പ്രധാനമായും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളേതൊക്കെയാണെന്ന് വച്ചാൽ ഒന്നാമത് വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് രണ്ടാമത് വീട്ടാവശ്യങ്ങൾക്കുള്ള ചിലവ് എന്നിവയൊക്കെയാണ് കാരണം എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തത് അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അച്ഛൻ തിരികെ നാട്ടിലേക്ക് കൊറോണ സമയത്താണ് തിരിച്ചു വന്നത് പിന്നെ തിരിച്ച് പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തികമായും വളരെ വളരെ പ്രതിസന്ധി ഏർപ്പെടുന്നുണ്ട് ഇപ്പോൾ അമ്മയും അച്ഛനും ജോലിയ്ക്ക് പോയിട്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതിനിടെ എനിക്കുള്ള പ്രതിസന്ധി എന്ന് വച്ചാൽ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവാണ് ഞാൻ മൈസൂർ ഒരു മാനേജ്മെൻ്റ് ഡി എം ഡി യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വളരെ ഏറെ പൈസ ആവശ്യമായി വരികയും വീട്ടിലതിലാത്ത അവസ്ഥകളും കാരണങ്ങളും ഒക്കെയുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾ മറികടക്കാൻ ഞാൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ചിലവ് പ്രധാനമായും കുറയ്ക്കുക എന്നത് ഉള്ളതാണ് പിന്നെ ഞാനൊരു പ്രത്യേക ലോണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ പ്രധാനമായും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം മാത്രം ആ ലോൺ തിരിച്ചടച്ചാൽ മതി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നത് പിന്നെ ലിക്വിഡ് സേവിങ്ങ് പരമാവധിയാക്കുക എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ പ്രധാനമായും ഞങ്ങളെല്ലാം അക്കൗണ്ടുകളിലാണ് പൈസ ഉള്ളത് അത് ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിയുമ്പോൾ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ ലിക്വിഡ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കാവു എന്നുള്ള ഒരു അജണ്ടയും ഞങ്ങളുടെ വീട്ടിലുണ്ട്